ഹലോ ക്യാബിന്റെ ഡ്രൈവർ അല്ലേ ആ ഞാൻ എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത് ആ ഞങ്ങൾ ഒരു ക്യാമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഞങ്ങൾക്ക് എന്താണ് എറണാകുളം എറണാകുളത്ത് നിന്നിട്ട് എന്താണ് കോഴിക്കോട് വഴി ഞങ്ങൾക്കൊന്ന് പാലക്കാട് വരെ പോവണമായിരുന്നു അതിനുവേണ്ടിയിട്ട് ക്യാമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ ആ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ട് കുറച്ചധികം പേരുണ്ട് അപ്പോൾ നമുക്ക് എത്ര രൂപയാവും നമ്മുടെ ക്യാമ്പ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ

ആ നമുക്ക് കോഴിക്കോട് വഴിയാണ് പോവേണ്ടത് എറണാകുളത്ത് കോഴിക്കോട് വഴി നമുക്ക് പാലക്കാട് വരെ പോവണം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്കെന്ന് വെച്ച് എന്താണ് പറയുക ഞങ്ങളുടെ ഫാമിലി ഉണ്ട് അമ്മ അച്ഛൻ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി മൊത്തമുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മളെ കൂലി ഒക്കെ എങ്ങനെയായിരിക്കും ആണോ ആ എന്നാൽ ആയിക്കോട്ടെ വരുന്നതിന് രണ്ടുദിവസം മുന്നേ എന്തായാലും വിളിക്കാം ആ ഓക്കെ